ലോക്ക്ഡൗൺ കാലത്ത് ഞങ്ങൾ പല തരത്തിലുള്ള പലഹാരങ്ങളും പിന്നെ പഴംപൊരിയും സുഗിയനും അങ്ങനെ പരിപ്പുവട അങ്ങനെ പല തരത്തിലുള്ള പാചകവും ചെയ്തു നോക്കി പിന്നെ കറികൾ നമുക്കറിയാത്ത കറികളെല്ലാം വെച്ച് നോക്കി പിന്നെ എല്ലാതരം പലഹാരങ്ങളും ഉണ്ടാക്കിപ്പഠിച്ചു പിന്നെ വൈകുന്നേരങ്ങളിലായാലും എന്നും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഓരോ അങ്ങനെ നോക്കിപ്പഠിച്ച് എല്ലാം ഓരോ തരത്തിലും ഞങ്ങൾ ആ ഒഴിവുകാലത്ത് പലതരത്തിലുള്ള രുചിയായ ഭക്ഷണങ്ങളും പിന്നെ അങ്ങനെ എൻ്റെ മോളെന്നു പറഞ്ഞാൽ ഇങ്ങനെ ചിത്രങ്ങളൊക്കെ വരയ്ക്കും അങ്ങനെ ചിത്രങ്ങളൊക്കെ വരച്ച് അങ്ങനെയൊക്കെ ഓരോ തരത്തിലുള്ള ചിത്രങ്ങളും പല തരത്തിലുള്ള ചിത്രങ്ങളും അങ്ങനെ വരച്ചുകൊണ്ടിരുന്നു പിന്നെ അങ്ങനെ ഓരോന്ന് ഓരോ പരീക്ഷണങ്ങൾ നടത്തി അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം ഞങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള എല്ലാം ഉണ്ടാക്കാനും അങ്ങനെ എല്ലാത്തിനും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ കുറേയങ്ങനെ സമയവും നമുക്ക് സമയവും പോയിക്കിട്ടും പിന്നെ നമ്മളെ പിന്നെ അല്ലാതെ എല്ലാ പലഹാരങ്ങളും അതുപോലെ ഉണ്ടാക്കി അങ്ങനെ പഠിക്കുകയും ചെയ്തു